ഹലോ ഇൻ്റസ് കാർ വാഷ് ഓപ്പറേറ്ററ്റർ അല്ലേ ആ ആ അപ്പോൾ അത് എന്താണെന്നു പറഞ്ഞാൽ ഒരു കാറ് കഴുകാൻ വേണ്ടി ആയിരുന്നു പക്ഷെ വാഷിങ് പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ

വണ്ടി പോളോ ആണ് മറ്റേ നമ്മുടെ വോക്സവാഗൺ പോലെ പോളോ അപ്പം ഇത് പറഞ്ഞോ അപ്പം അത് നിങ്ങൾ നിങ്ങൾ കാറ് വാഷിങ്ങ് അല്ലാണ്ട് ഇതും കൂടെ ചെയ്യുന്നുണ്ടോ സർവീസും കൂടെയാണോ ചെയ്യുന്നത് എന്നു പറയുമ്പോൾ ഫുൾ സർവീസ് ആ ഓക്കേ ഓക്കേ ഇതിപ്പം എങ്ങ നെയാണ് ഇതിപ്പം സ്ഥലം ലൊക്കേഷൻ എനിക്ക് കറക്റ്റ് അറിയത്തില്ല നമ്പറ് മാത്രം കിട്ടി കൂട്ട്കാർടേയ്ന്ന് അപ്പം നമ്മൾ അങ്ങനെ വിളിക്കുന്നതാണ് അപ്പം സ്ഥലം കുട്ടിക്കാനത്താണോ ആ ഓക്കേ ഓക്കേ ഓപ്പൺമിഷൻ്റെ ഓപ്പസിറ്റോ ഞങ്ങളുടെ സ്ഥലമെന്ന് പറഞ്ഞാൽ പീരുമേടാണ്

ഇല്ല ഇല്ല ആ ആ അത് അത് കുഴപ്പം അത് പിക്കപ്സ്സ് വേണമെന്നില്ല കാരണം വണ്ടി ഓടുന്ന കണ്ടീഷനിലാണ് നമുക്ക് ജസ്റ്റ് ഈ സർവീസ്സ് പരിപാടികൾ ഒന്ന് നടത്തിയാൽ മതി യെസ് യെസ് ആ അത് ആ ഓക്കേ അത് നോക്കാം നമുക്ക് പിന്നേ കാർ വാഷിങ്ങ് പിന്നെ എന്തക്കെയാണ് എന്തൊക്കെ സർവീസുകളാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് മൊത്തത്തിൽ ആ പിന്നേ നമ്മളുടെ ഓയിൽ ചേയ്ഞ്ചിങ്ങും പരിപാടിയൊക്കെ ഉണ്ടോ ഓയിൽ ചേയ്ഞ്ചിങ്ങ് ആ മൈനാ വർക്ക് ഞാൻ അത് ചോദിക്കാൻ മറന്നു പോയത് അത് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ചേട്ടാ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ചെറിയ ഒരു തട്ട് ഉണ്ട് അപ്പം അതൊന്ന് ക്ലിയറാക്കാൻ പറ്റുമായിരിക്കുമോ ഫ്രണ്ടിൽ ആ ബെൻ്റാണ് ബെൻ്റാണ് പിന്നെ ചെറിയ ഒരു ഒരു ഒരു സ്ക്രാച്ചിൻ്റെ പാടും കൂടെ ഉണ്ട് ആ ഹാ ആ എന്തായാലും അത് കാണാൻ പറ്റാത്ത ഒന്ന് രീതിയിൽ ആക്കിത്തന്നാൽ മതി വേറെ ഒന്നും വേണ്ട ആ അങ്ങനെ ജെസ്റ്റ് ചുമ്മാ ചുമ്മാ ഒരു ഇതിൽ ഒരാൾ എടുത്തുകൊണ്ട് പോയി ഇടി ഇങ്ങനെ ആക്കിയതാണ് ആ ആ ആയിക്കോട്ടെ അതല്ല പിന്നെ എനിക്ക് ചോദിക്കാനുള്ള കാര്യമെന്താണെ ന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ ടൈമിങ്ങൊക്കെ എങ്ങനെയാണ് ഈ ഷോപ്പിൻ്റെ ടൈമിങ്ങൊക്കെ ഏഴ് മണി വരെ അല്ലേ അപ്പം ഞാൻ പത്ത് തൊട്ട് അല്ല പത്ത് അല്ല ഒരു ഒമ്പത് തൊട്ട് അഞ്ചു വരെ എനിക്ക് വർക്ക് ഉണ്ടാവും അപ്പം വർക്ക് കഴിഞ്ഞു ഞാൻ വർക്ക് ഉണ്ട് പോവുന്നത് ഈ വണ്ടി കൊണ്ടാണ് നമുക്ക് വേറെ വണ്ടി ഇല്ല അപ്പോൾ വർക്കിന് നമ്മൾ പോവുന്നത് ഇവിടെ ചങ്ങനാശ്ശേരിയിലാണ് നമ്മൾ ഇവിടെ നിന്ന് വർക് നമ്മൾ വണ്ടിയൊക്കെ വിളിച്ചു അവിടം വരെ പോയിട്ടാണ് ചെയ്യുന്നത്

അഞ്ചിന് വർക്കും കഴിഞ്ഞു തിരിച്ചു വരുമ്പം ഏഴ് മണി കഴിയും അപ്പം എന്നാ ചെയ്യുന്നത് അപ്പോൾ ശനിയും ഞായറൊക്കെ പരിപാടികൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ അല്ല ശനിയു ഞായർ ശനിയാഴ്ച് ഹാഫ് ഡേ ആണ് ഒരു മണിവരെയുള്ളു പിന്നെ ഞാറാഴ്ച്ച നോക്കാം ഞാറാഴ്ച്ച ലീവ് ആണ് ഞാറാഴ്ച്ച ഇല്ല ഒന്നുമില്ല എക്സ്റ്റെൻ്റ് ചെയ്യാനോ ഓ ഹോ ഹോ ഓക്കെ ഓക്കെ ഹാ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമല്ലേ ആ ശനിയാഴ്ച്ച ഏഴു മണി വരെ ആണോ അതോ ശനിയാഴ്ച്ച ഇല്ലേ ഓഹോ ഓക്കേ ഓക്കേ അപ്പം നമുക്ക് ഏതെങ്കിലുമൊരു ദിവസം വച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് കൊണ്ടു വന്നേക്കാം വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ്സ് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ ഇല്ലല്ലോ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ശരി ശരി